കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ഓരോ മനുഷ്യരും അവരുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതും അവരുടെ അഭിമാനപരമായി കണ്ടുവരുന്ന ഒരു വലിയ കാര്യം തന്നെ ആയിരുന്നു മലയാള ഭാഷ എന്ന് പറയുന്നത് എന്നാൽ കാലക്രമേണ വരുന്ന പുതിയ തലമുറ മലയാള ഭാഷയെ മാറ്റി നിർത്തി അതിന്റെ പ്രാധാന്യങ്ങളെ തിരിച്ചറിയാണ്ട് പോകുന്നത് നമുക്ക് കാണാം കൂടുതൽ മലയാള ഭാഷയെപ്പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് മലയാള ഭാഷക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു കാരണം അത് എഴുതുവാനും പഠിക്കുവാനും അതിന്റെ കൂടുതൽ ഗ്രാമർ എന്നുള്ള ഒരു ഭാഗത്തിലേക്ക് അറിവുകൾ കൂടുതൽ നേടുവാനും വളരെ ആൾക്കാർ പഠിക്കുവാൻ അതിന് സമയം കണ്ടെത്തിയിരുന്നതും നമുക്ക് കാണാം എന്നാൽ ഈ ഒരു പുതിയ തലമുറ മറ്റ് ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്നു ഇംഗ്ലീഷ് അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ ഭാഷകൾ പഠിക്കുവാനും ആ നാട്ടിലേക്ക് പോകുവാനും നമ്മുടെ മാതൃഭാഷയും മലയാള നാടിനെയും മറന്ന് അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനും മറ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാം പിന്നെ പറയുകയാണെങ്കിൽ മലയാളം എഴുതുന്നത് പണ്ടൊക്കെ നമ്മൾ അച്ചടി ഭാഷയിൽ കണ്ടു വരുന്ന ലിപികൾ മാത്രം ആയിരുന്നു നമുക്ക് ബുക്കുകളായിക്കോട്ടെ കവിതകൾ ആയിക്കോട്ടെ എല്ലാം ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിലുള്ള എഴുത്തുകളും കവിതകളായിക്കോട്ടെ എഴുത്തുകളായിക്കോട്ടെ ലിപികളായിക്കോട്ടെ പുസ്തകങ്ങളായിക്കോട്ടെ എല്ലാം മനസ്സിലാകാവുന്ന രീതിയിലേക്ക് ആൾക്കാർക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് മറ്റ് പണ്ടത്തെ ആ ഒരു കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം വിദ്യഭ്യാസ രംഗം വിദ്യാഭ്യാസ രംഗത്ത് പറയുകയാണെങ്കിൽ മലയാള ഭാഷക്ക് കുറച്ചു പ്രാധാന്യം കൊടുക്കണം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കാരണം ഇപ്പം കോളേജുകളായിക്കോട്ടെ സ്കൂളുകൾ ആയിക്കോട്ടെ പ്രൈമറി സ്കൂളുകൾ ആയിക്കോട്ടെ എല്ലായിടത്തും മലയാള ഭാഷയെ പ്രാധാന്യം കൊടുക്കാതെ മറ്റ് ഭാഷകൾക്ക് മലയാളം എന്നതിൽ ഉപരി മറ്റ് ഭാഷകളെ കൂടുതൽ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ പഠിക്കുവാനും ഇംഗ്ലീഷിൽ സംസാരിക്കുവാനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാം അപ്പോ നമ്മൾ വിചാരിച്ചാൽ മാത്രമാണ് നമ്മുടെ ഭാഷയെ ഭാവി തലമുറയിൽ നമ്മളത് മുൻപോട്ട് കൊണ്ടു പോകുവാനും ആ ഭാഷ ഇല്ലാതാകാതിരിക്കാൻ ഭാവി ഇനി വരുന്ന തലമുറകളിൽ മലയാള ഭാഷ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനപ്പുറം മലയാള ഭാഷ വളരെ വർഷങ്ങൾ തൊട്ട് ഇപ്പോഴും അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പ്രാധാന്യം അതിന്റെ കാഴ്ചപ്പാടുകളും എല്ലാം നമ്മൾ കൊണ്ടു വന്നാൽ മാത്രമാണ് ആൾക്കാർക്ക് മനസ്സിലാക്കാനും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയുള്ളൂ